വയനാട് ജില്ലയിലെ പ്രധാന കാർഷിക ഉല്പന്നങ്ങൾ എന്ന് പറയുന്നത് നെല്ല് കുരുമുളക് കാപ്പി ഇഞ്ചി തെയില വാഴ സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങനെ എല്ലാ കൃഷികളും വയനാട്ടിൽ അനുയോജ്യമാണ് പിന്നെ കന്നുകാലികളെ വളർത്തുന്നതും പശുക്കള് പശുക്കള് ആട് കോഴി ഇവയൊക്കെ വളർത്തുകയും ചെയ്യുന്നുണ്ട് കൃഷിക്ക് കൃഷിക്ക് ആവശ്യമായ ജലസേചനം എന്നുപറയുന്നത് മഴയെയാണ് നമ്മൾ മെയിൻ പ്രധാനമായും ആശ്രയിക്കുന്നുള്ളത് പിന്നെ ടാങ്കുകളിലെ വെള്ളവും മറ്റുള്ള കിണറ്റിലെ കിണറുകളിലെ വെള്ളം ഡാമുകളിലെ വെള്ളമൊക്കെ നമുക്ക് ജലസേചനത്തിനായി ആശ്രയിക്കുന്നുണ്ട് പിന്നെ തണുത്ത കാലാവസ്ഥയായിരുന്നാൽ തന്നെ ജലസേചനം വളരെ കുറവ് മതിയാകുകയും ചെയ്യുന്നുണ്ട്